ഹലോ ഗുഡ് മോർണിംഗ് ആ മിസിസ് ഏലിയാമ്മ അല്ലേ ഞാൻ കോട്ടയം കാരിതാസ് ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത് ഡോക്ടർ നീനയുടെ പേഷ്യൻ്റ് അല്ലേ അതൊരു അൾട്രാ സൗണ്ടിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നാളത്തേക്ക് ആ ആ അതിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത് ഓക്കെ നാളെ രാവിലെ ഒരു പതിനൊന്ന് മണി ആവുമ്പോൾ കാരിതാസ് ഹോസ്പിറ്റലിലേക്ക് വരണം

പിന്നെ നൈറ്റിന് പത്ത് മണിക്ക് ശേഷം ഫുഡൊന്നും കഴിക്കരുത് ലൈറ്റ് ആയിട്ട് വെള്ളം കുടിക്കുക ആ ഓക്കെ പൈസയുടെ കാര്യം അവിടെ റിസപ്ഷനിൽ ചോദിക്കുമ്പോൾ അവർ പറയും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല എത്രയാണെന്ന് ആ ഓക്കെ റിസൾട്ട് നാളെ മറ്റന്നാളാണ് കിട്ടത്തുള്ളൂ മറ്റന്നാളെ രാവിലെ ഒരു ഒമ്പത് മണി ഒമ്പതര ആവുമ്പഴത്തേക്കും വന്നാൽ മതി ആ റിസൾട്ട് മേടിച്ച് ആ അന്ന് അന്നേരം തന്നെ ഡോക്ടറെ കാണാം ആ ഓക്കെ